ഒരു ഹലോ ഞാൻ നമ്മുടെ സുഹൃത്ത് ജിബി തോമസാണ്

നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ശരീരം നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു വസ്തുവായിട്ട് എനിക്കനുഭവപ്പെടുന്നു അതുകൊണ്ടെനിക്ക് തോന്നുന്ന ഏതാനും നിർദ്ദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകാം നമുക്ക് കുടുംബത്തിനും നമ്മുടെ എപ്പോഴും അസുഖങ്ങൾ ആർക്കുവേണമെങ്കിലും എപ്പോൾവേണമെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഇതിനായിട്ടൊരു നല്ല ഇൻഷുറൻസ് പോളിസി എടുത്താൽ നമുക്കതിനുള്ള കവറേജ് ലഭിക്കും അസുഖങ്ങൾ വരും നമുക്ക് സംരക്ഷണം ലഭിക്കും അതിൻ്റെ കാലയളവും നമുക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ ഓരോ വ്യക്തികളും കുടുംബത്തിലെ ഓരോ ഉണ്ട് ഫാമിലിയിൽപ്പെട്ട എല്ലാവർക്കും ഇതിനുള്ള കവറേജ് ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ പ്രായം അനുസരിച്ചായിരിക്കും അതിൻ്റെ എമൗണ്ട് അടയ്ക്കേണ്ടത് അതിൻ്റെ ടേമ് കാലയളവ് ഇവയെല്ലാം നമുക്ക് നമുക്കെപ്പോഴും നമ്മൾ നിശ്ചയിക്കാം നമുക്കതിനകത്ത് നമ്മുടെ ചെറുപ്പത്തിൽ മുതൽ നമ്മുടെ ഒരു നമുക്ക് ഒരു ആരോഗ്യമുള്ള കാലംവരെ നമുക്ക് ഈ ഇൻഷുറൻസ് ഉപയോഗിക്കാം എപ്പോൾ വേണമെങ്കിലും നമുക്കാവശ്യമുള്ള സമയം ആ ഒരു കാര്യമാണിത് ഓരോ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകുന്നതായിരിക്കും ഒരു പോളിസി നമുക്ക് പലവിധ അസുഖങ്ങളുണ്ട് ഈ നമ്മുടെ ശരീരത്തിലെ അങ്ങനെ തലയ്ക്ക് ശരീരത്തെ ഹൃദയം വൃക്ക കിഡ്നി അങ്ങനെയുള്ള എല്ലാ ഇവയ്ക്കെല്ലാം അസുഖങ്ങളുണ്ടാവാം ഇന്നത്തെ ജീവിതസാഹചര്യങ്ങൾ അസുഖങ്ങൾക്കെപ്പോഴും ഒരു അനുകൂല സാഹചര്യമാണ് ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതരീതി നമ്മുടെ വ്യായാമക്കുറവ് ഇവയെല്ലാം നമുക്ക് ഇപ്പോൾ ഒരു ഇൻഷുറൻസ് നമുക്ക് നമുക്കൊരു ഇൻഷുറൻസ് കവറേജ് എപ്പോഴും ഉള്ളതെപ്പോഴും നമുക്കൊരു സംരക്ഷണമാണ് അല്ലേ നമുക്ക് പല ഗഡുക്കളായിട്ട് നമുക്കിതിൻ്റെ പൈസ അടക്കാനായിട്ട് സാധിക്കും അടവ് നമുക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കുവാനായിട്ട് സാധിക്കും പോളിസിയെടുക്കുന്നത് എപ്പോഴും നമുക്കൊരു നഷ്ടമല്ല നമുക്കെപ്പോഴും ഒരു മിച്ചം വെച്ചു ഒരുമിച്ച് നമുക്കൊരു സേവിങ്സ് എപ്പോഴും നമുക്കതൊരു നമ്മുടെ ജീവിതത്തിലെ ഒരു ലാഭമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം നഷ്ടമല്ല കാരണം എന്നു വെച്ചാൽ നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ അച്ഛനൊ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ എപ്പോഴും അസുഖമുണ്ടാകാം വൈഫിനോ അപ്പോൾ നമുക്കത് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയാൽത്തന്നെ അതിൻ്റെ പേപ്പറുകളൊക്കെ കൃത്യമായിട്ട് നീക്കി അതിനുള്ള ബാലൻസ് നൽകിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഇത് നമ്മുടെ കവറേജ് നൽകുന്നതാണ് അതിനായിട്ടൊന്ന് നമ്മൾ പരിശ്രമിക്കുക അപ്പോൾ ഇതിനായിട്ടുള്ള കുറേ നിർദ്ദേശങ്ങളുണ്ട് പല ഇൻഷുറൻസിനെക്കുറിച്ച് പറഞ്ഞാൽ മത്സരമുള്ള ഒരു മേഖലയാണിത് ഈ മത്സരമുള്ള മേഖലയിൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മൾക്കതിനുള്ള ഒരു മെച്ചമായിട്ട് ലഭിക്കും അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ നല്ലയൊരു നല്ല പോളി നല്ലയൊരു പോളിസി എപ്പോഴും നമ്മുടെ ജീവിതത്തിന് നല്ല ഒരു അടിസ്ഥാനം നമുക്കൊരു സംരക്ഷണമായിരിക്കും നമുക്കൊരു പിന്നീട് അതൊരു നഷ്ടമല്ല അതിനായിട്ടൊരു ഒരു വ്യക്തി ചെയ്യേണ്ടത് നമ്മളൊരു നമുക്ക് അടയ്ക്കാൻ പറ്റുന്നൊരു തുക നമ്മൾ തിരഞ്ഞെടുക്കുക ഒരു കാലയളവ് തിരഞ്ഞെടുക്കുക നമുക്കൊരു ഒരു പ്രായം തിരഞ്ഞെടുക്കുക അതിന് അനുസരിച്ച് നമ്മളൊരു തുക അടക്കേണ്ടിവരും നമ്മൾ പക്ഷെ നമുക്ക് സൗകര്യപ്രദമായ രീതിയിലത് വിനിയോഗിക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് നിങ്ങൾ ഒരു നല്ല പോളിസി എടുക്കുന്നതെപ്പോഴും നല്ലതാണ് എൻ്റെ നിർദ്ദേശമാണെൻ്റെ ഹെൽപ്പ് എപ്പോഴും ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള ഒരു എന്നാൽ എപ്പോഴും എന്നെ വിളിക്കാവുന്നതാണ് അതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും അതിൻ്റെ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായ ഇത് മാർഗ്ഗനിർദ്ദേശങ്ങളും നൽകുന്നതാണ് അതിനായിട്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയുക എൻ്റെ കുടുംബത്തിലെ എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ കൂടെ പറയുക അതുപോലെ പുറത്തേക്ക് പോകുമ്പോൾ അധികം അപകടങ്ങളുണ്ടാവും ഈ വാഹനാപകടങ്ങളൊക്കെ ഉണ്ടാവും വാഹനാപകടങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ വാഹനങ്ങൾ നമ്മൾ മിക്കാറും ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ ഒരാളിനുള്ള അപകടങ്ങൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം നമ്മുടെ നമ്മുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ വേറൊരാൾ വാഹനങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് പലപ്പോഴും അപകടങ്ങൾ ആർക്കു വേണമെങ്കിലും ഇപ്പോൾ ഉണ്ടാകാം അതുപോലെ നമ്മൾ നമ്മുടെ ഈ ജീവിതസാഹചര്യങ്ങളിൽ എപ്പോഴും വേണമെങ്കിലും അപകടങ്ങളുണ്ടാവും നമുക്ക് വീണു പരിക്കേൽക്കാം അങ്ങനെയുള്ള നമ്മൾ ശാരീരികമായിട്ട് എന്തെങ്കിലും ഒരു ക്ഷീണം തോന്നിയാൽ നമുക്ക് ചിലപ്പോൾ അപകടങ്ങളുണ്ടാവാം വാഹനമോടിക്കുമ്പോൾ തീർച്ചയായിട്ടും അപകടങ്ങൾക്ക് നല്ല സാധ്യതയുണ്ട് അപ്പോൾ ഈ വാഹനങ്ങളിലെ സുരക്ഷ മാത്രമല്ല നമ്മൾ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മുൻകരുതൽ എടുക്കണം മുൻകരുതൽ എപ്പോഴും നമുക്ക് ജീവിതത്തിൽ നല്ലതാണ് അതിനായിട്ട് നമ്മൾ പരിശ്രമിക്കുക ഒരിക്കലുമതൊരു നഷ്ടമല്ല ഒരു മുൻകരുതൽ എടുക്കാനായിട്ടുള്ളൊരു ഒരു ഒരു നിർദ്ദേശം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ഈ നിർദ്ദേശം എപ്പോഴും നിങ്ങളുടെ ഒരിക്കലും ഒരു നഷ്ടമല്ല ഈ നഷ്ടം നിങ്ങളൊരു നിങ്ങളുടെ ജീവിതത്തിലെ ചിലപ്പോളൊരു നല്ല ഗുണമായിട്ട് മാറാം എന്താണെന്നു വെച്ചാൽ നിങ്ങൾ പൈസ മുടക്കന്നുന്നതാണ് നഷ്ടം ഉദ്ദേശിച്ചത് പക്ഷെ ആ നഷ്ടം ഒരിക്കലും ഒരിക്കലും ഒരു പൈസ വരും പോകും നമുക്കെപ്പോഴും പൈസ നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കും നമുക്ക് ആ ആരോഗ്യം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും നമ്മൾക്ക് നമ്മുടെ ദീർഘായുസിന് എപ്പോഴും നന്നായിരിക്കും നിങ്ങളെ ദൈവാനുഗ്രഹം ധാരാളം ഉണ്ടാകട്ടെ ഇപ്പോൾ ഒരു നല്ലൊരു പോളിസിയെടുക്കാനായിട്ട് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ശുപാർശ ചെയ്യുന്നു അതിനുള്ള എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് ഞാൻ നൽകുന്നതാണ് അതിനായി നിങ്ങൾ പരിശ്രമിക്കുക അപ്പോൾ നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഇനിയും എന്നെ വിളിക്കുക കോൺടാക്ട് ചെയ്യുക നന്ദി നമസ്കാരം എന്ന് അറിയിക്കുന്നു